മത്സ്യ തൊഴിലാളികള് കൂടുതൽ പേരും മുക്കുവന്മാരാണ് നമ്മളും മുക്കുവൻ എന്ന ഇതില് പെടുന്നവരാണ് എല്ലാവരും അത് പണ്ടു തൊട്ടേ അച്ഛനച്ഛാച്ചൻമാരുടെ കാലം തൊട്ടേ ഒരു ഫാമിലിയായിട്ട് അന്നവിടെ കടൽ തീരത്തിൻ്റെ സൈഡിലാണ് എല്ലാവരും താമസിക്കാറ് കടൽ കടലമ്മ എന്നാണ് പറയാറ് കടൽ കടൽ തീരത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും കടലമ്മയോട് പറയുക അതേപോലെ സങ്കടങ്ങൾ കേൾക്കുക ഇതാണ് അവിടെ നടക്കാറുള്ളത് അപ്പോൾ എല്ലാ സങ്കടങ്ങളും കടലമ്മയോടാണ് പറയാറ് നമ്മളൊരുമിച്ച് കുടുംബത്തെപ്പോലെയാണ് അവിടെയുള്ള എല്ലാവരും താമസിക്കാറ് ജീവിച്ച് വരാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതരീതിയാണ് മത്സ്യ തൊഴിലാളികളുടേതെന്നുള്ളത് പിന്നെ ഈ ഉൽസവമെന്നൊക്കെ പറയുമ്പോൾ ഫെസ്റ്റ് ഫെസ്റ്റാണ് ന്യൂ ഇയറാണെങ്കിലും അതേപോലെ ഫെസ്റ്റ് ഫെസ്റ്റാണ് നടത്താറ് എല്ലാവരും അതേ ഒരു ക്രിസ്മസ് പോലുള്ള അങ്ങനെയുള്ളതൊക്കെയാണ് അവിടെ മെയിനായിട്ടുള്ള ഉത്സവം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക അത്യാവശ്യം മദ്യമൊക്കെ കഴിച്ച് മതി മറന്ന് ആഘോഷിക്കുക ഡാൻസും പാട്ടും അതേപോലെ ഭക്ഷണങ്ങളും അത് ഭക്ഷണമെന്ന് പറയുന്ന നമ്മള് കടലിൽനിന്ന് പിടിച്ച ഏറ്റവും വ്യത്യസ്തമായ രീതിയിലുള്ള കറികളും അതേപോലെ ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ കൂടിയിട്ടുള്ള നല്ല വലിയൊരു ഫെസ്റ്റൊക്കെയാണത് നല്ല ആഘോഷം ആണത്